ഈ റെഡിമേഡെന്ന് പറഞ്ഞാൽ ഒരേ പോലത്തെ പിന്നെ ഒറ്റയടിക്ക് ഉണ്ടാക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് ഒരേ പോലത്തെ മോഡല് അതില് സൈസിലു മാത്രം വേരിയേഷ്ണിൽ വരുന്നതാണ് ഈ റെഡിമേഡ് വസ്ത്രങ്ങള് അതിങ്ങനെ ഒരേ റെഡിമേഡ് വസ്ത്രങ്ങള് ഈ സ്മോള് ലാർജ് എക്സെൽ മീഡിയം അങ്ങനെ ഇതില് വരും എല്ലാം റെഡിമേഡാവുമ്പം പക്ഷെ നമ്മള് കൈകൊണ്ട് നിർമ്മിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മുത്ത് വെക്കുന്നത് പോലും വളരെ സൂക്ഷ്മതയോടെ അവര് ആത്മാർത്ഥമായിട്ടായിരിക്കും അതില് പണിയെടുക്കുന്നത് എനിക്ക് നെയ്ത വസ്ത്രങ്ങള് വാങ്ങാനാണ് ഏറ്റവുമിഷ്ടം കാരണം അതില് അവരുടെ ഹാർഡ് വർക്ക് അവര് അവര് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടണന്നല്ലേ അവർക്ക് എല്ലാവർക്കും നെയ്ത് അതില് ഹാർഡ് വർക്കെയ്ത് അതിലൊരു തുന്നലാണെങ്കിലും പോട്ടെ ഒരു കല്ല് പിന്നെ തുന്നികൂട്ടി വെക്കുന്നതാണെങ്കിലും അതൊരു ഹാർഡ് വർക്കാണ് അപ്പോൾ അവര് അവർക്ക് പ്രോത്സാഹനമാണ് നൽകണ്ടത് അവർക്ക് അവരുടെ കഴിവ് കഴിവിനുള്ള പ്രതിഫലം അവർക്ക് കിട്ടണം അപ്പോൾ ഞാൻ നെയ്ത് നെയ്ത് ഉണ്ടാക്കുന്ന വസ്ത്രങ്ങള് വാങ്ങാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നെയ്യുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇപ്പം കാലം മാറുമ്പം കുറെ പേരൊക്കെ പിന്നെ റെഡിമേഡ് വസ്ത്രങ്ങൾക്ക് പുറകെ പോവുന്നുണ്ടെങ്കിലും എനിക്ക് കൂടുതലിഷ്ടം കയ്യും കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രങ്ങള് അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതാണ് എനിക്കിഷ്ടം